ഹലോ അതേലോ എന്താണ് അതേ ഏതു കേക്കാണ് വേണ്ടത്

അറുന്നൂറ് അഞ്ചൂറ് പല പലതിനും പല റേറ്റാണ് ഏതാണു വേണ്ടതെന്നു പറയൂ അപ്പോൾ റേറ്റ് പറയാം എങ്ങനെയാണ് അര കിലോനാണെങ്കിൽ അഞ്ഞൂറും ഒരു കിലോവിനാണെങ്കിൽ ആയിരം അതിന് ഈ റേറ്റ് തന്നെയാണ് വൈറ്റിന് ഈ വില തന്നെ പിന്നെ ചോക്ലേറ്റ് കേക്കാണെങ്കിൽ അറുന്നൂറ് അര കിലോക്ക് അറുന്നൂറും പിന്നേ ഒരു കിലോക്കാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറും ആകും വേറേ ഈ ഹലോ വേറേ ഈ വാനില കേക്കുണ്ട് ക്രീം കേക്കുണ്ട് ആഹ് ഇതൊക്കെയാണ് വ ആ അതെ അതിനിപ്പം പ എക്സ്ട്രാ അ എക്സ്ട്രാ നൂറു രൂപയോ

കട്ടപ്പന ജംങ്ഷൻ ആ ജംങ്ഷനിൽ തന്നെയാണ് ആ ഓക്കെ ശരി ശരി ആ അപ്പം അറുന്നൂർ രൂപയാകും ആ ആ ആ ഹോംലി അ അതിൻ്റെ ചാർജ് കൂടിയും കൂടി ആ പറഞ്ഞേക്കാം അത് ഡിസൈനും മറ്റേ ഇതെല്ലാം കൂടിയും വാട്സപ്പ് ചെയ്തു തന്നാൽ മതി ചെയ്തു തന്നേക്കാം എയ് ഇല്ല ഇല്ല ആ സെയിം പ്രൈസ് തന്നെയാണ് അതാ അ അത് ഇവിടെ ഇവിടെ അടുത്തുള്ളതാണെങ്കിൽ ഞങ്ങൾ തന്നേ കൊടുത്തൊ കൊടുക്കും ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ചെയ്താൽ മതി ഓൺലൈനായിട്ടാണ് പേമെൻ്റ് ആ ഉണ്ട് ഉണ്ട് ആ മിനി കേക്കെന്നു പ റെഡ് വെൽവെറ്റിട്ടൊക്കെ മിനിയേച്ചറുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതു കൊണ്ട് അങ്ങനേ എടുക്കുന്നില്ല ഓഡറൊന്നും അ അ ഇപ്പോൾ എടുക്കുന്നില്ല മിനി കേക്കൊരു രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ എടുക്കും

അത് ഒരോ സീസണിൽ അനുസരിച്ചാണ് ഓഫറൊക്കെ വരുന്നത് എപ്പോഴുമില്ല ചില സ്പെഷൽ ഡേയ്സിന് ഓഫറൊക്കെ ഉണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന്

ആ ആ ഈ നമ്പറിലല്ലേ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിൽ ഏഡ് ചെയ്ത് വിട്ടേക്കാം അപ്പോൾ ഓഫറൊക്കെ അറിയാൻ പറ്റും ആ ആ ഓക്കെ ചെയ്തേക്കാം